ഞാൻ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർഥിനിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ പോയി നേഴ്സിങ് ചെയ്യുക എന്നതാണ് ആ ലക്ഷ്യത്തിലെക്കെത്താൻ വേണ്ടീട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ചവിട്ടുപടി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നതായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത് ബീ ടു എന്ന ലെവൽ പാസ്സായി എക്സാംസ് പാസ്സായതിന് ശേഷം ജർമ്മനിയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതായിരുന്നു എൻ്റെ ലക്ഷ്യം ലക്ഷ്യവും എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഘടകങ്ങളും അപ്പം ഞാനത് അതാണെൻ്റെ ഏറ്റോം വലിയ ലക്ഷ്യം ജർമ്മനിലേക്ക് പോവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്